പാരമ്പര്യേതര നീന്തൽ പരിശീലന രീതിയായ യോഗ അഭ്യസിക്കുന്നത് വഴി നീന്തല് കൂടുതൽ അനായാസമാക്കാനായിട്ട് സാധിക്കും നീന്തലിന് ഏറ്റവും അത്യാവശ്യയിട്ടുള്ള സംഭവമാണ് കൈകാലുകൾ ദൃഢത കൈകാലുകളും മസിലുകൾക്കും നല്ല ദൃഢതയുണ്ടെങ്കിൽ നീന്തല് നല്ല രീതിയില് അഭ്യസിക്കാൻ സാധിക്കും നീന്തൽ അനായാസകരമായി നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെതന്നെ മറ്റൊരിതാണ് മനസ്സിൻ്റെ കൺട്രോള് മാനസികമായിട്ടുള്ള നിയന്ത്രണം അതും ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള സംഭവം അതുപോലെ തന്നെ മറ്റൊരു പ്രധാനമായ ഘടകമാണ് നമ്മുടെ ബ്രീത്ത് കൺട്രോൾ ശ്വാസോച്ഛ്വാസം നിയന്ത്രിക്കുന്നത് വഴി നീന്തല് വളരെയധികം അനായാസമായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഈ മൂന്ന് കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിക്കുന്നൊരു രീതിയാണ് യോഗ പാരമ്പര്യമായിട്ട് നീന്തല് അഭ്യസിക്കുന്നതിൽ നിന്നും അഭ്യസിക്കുന്നവരെക്കാൾ കൂടുതൽ നല്ല രീതിയില് യോഗ അഭ്യസിക്കുന്ന ഒരാൾക്ക് നീന്തൽ അനായാസമായിട്ട് ചെയ്യാൻ സാധിക്കും മസിലുകൾക്ക് വരുന്ന ദൃഢത മൂലം അപ്പോൾ വെള്ളത്തിന്ന് രണ്ട് രീതിയിലേക്കും വകഞ്ഞു മാറ്റി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ കൂടുതൽ അനായാസപരമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും ഏറ്റവും ആയാസമുള്ള ഒരു കായിക ഇനങ്ങളിലൊന്ന് തന്നെയാണ് നീന്തല് നീന്തല് അനായാസമാക്കാനായിട്ട് നമുക്ക് കൈകാലുകളുടെ മസിലുകളുടെ ദൃഢത സഹായിക്കും പിന്ന ഉള്ളത് ബ്രീത് കൺട്രോളിങ്ങാണ് വെള്ളത്തിൽ ശ്വസിക്കാനാവാത്തതു കൊണ്ട് ഏറ്റവുമധികം പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണ് ബ്രീത് കൺട്രോൾ ബ്രീത് കൺട്രോളിങ്ങിൽ യോഗ അഭ്യസിക്കുന്നത് വളരെയധികം പുരോഗതി കാണാനായിട്ട് സാധിക്കും അതുവഴി നീന്തല് നമുക്ക് കൂടുതൽ പുരോഗതി കൈവരിക്കാനും കൂടുതൽ ആയാസമാക്കാനും സാധിക്കും ബ്രീത് കൺട്രോളും യോഗയ്ക്ക് വളരെ അധികം പ്രാധാന്യം നൽകുന്ന ഒരു സംഭവമാണ് അതുപോലെ മാനസികമായിട്ടുള്ള നമ്മുടെ ആ ദൃഢത മനസിനെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള കഴിവ് ശരീരം പറയുന്നിടത്ത് മനസ്സ് എത്തിക്കാനായിട്ടുള്ള കഴിവ് ഇത് യോഗ വഴി സാധിക്കുന്നതാണ് അങ്ങനെ യോഗ അഭ്യസിക്കുന്നത് വഴി നീന്തല് കൂടുതൽ അനായാസമാക്കാനായിട്ട് സാധിക്കും ഇത് നീന്ത് നമ്മളുടെ നീന്തൽ പ്രകടനത്തെ വളരെയധികം സ്വാധീനിക്കും